ഹലോ ഞാനേ എനിക്കൊരു വീട് വെയ്ക്കണ കാര്യത്തിനെക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്

പഴയ തറവാടായിരിക്കണം തറവാട് പോലത്തെ വീടായിരിക്കണം പക്ഷേ അതില് ഇപ്പോഴത്തുള്ള ഫെസിലിറ്റീസ് വേണം

രണ്ടായിരം

മുകളിലും വേണം ആ മതി മതി ആ നാല് കെട്ട് ടൈപ്പ് നടുമുറ്റം വേണം ആ പിന്നെ അറ്റാച്ച്ഡ് ബാത്ത്റൂമ് രണ്ട് ബെഡ്റൂമ് വേണം ഒര് മാസ്റ്റർ ബെഡ്റൂമ് വേണം ആ രണ്ട് ബെഡ്റൂമില് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമായിരിക്കണം പിന്നെ ഡൈനിങ് ഹാള് കിച്ചെൺ പൂജാ മുറി വർക്ക് ഏരിയ

സിറ്റ് ഔട്ട് വേണം ഫ്രണ്ടില് മുകളിലത്തെ നിലയിലേക്ക് പോവാൻ ഉള്ളിലൂടെ സ്റ്റെയർ കേയ്സ് വേണം പുറത്തുകൂടെ വേണ്ട പുറത്തോട്ട് ഇപ്പറത്തൂടെ വേണം റ്റെറസിൽ പോകാൻ

ആ ഔട്ട് സൈഡും വേണം ഇത് എപ്പഴത്തേന് കംപ്ലീറ്റ് ആകും ആ മുകളില് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും സിറ്റ് ഔട്ടും വേണം ശരി ഇത് വർക്ക് നാ കഴിയുമ്പോൾ ഇത് എത്ര സമയം ആകും ഞങ്ങള് എപ്പഴ് ഫണ്ട് അയച്ച് തരണം ബാക്കി നിങ്ങള് ചെയ്താൽ മതി ഫണ്ട് അയച്ച് തരാം ഇടയ്ക്ക് വന്ന് നോക്കുകയും വേണം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും രണ്ടാഴ്ച്ചേനുള്ളില് പ്ലാന് തരാൻ പറ്റുമോ ഓക്കെ ശരി ഞാന് പിന്നെ വിളിക്കാം